ഉത്സവങ്ങളായിട്ട് ഓണത്തിന് ഞങ്ങൾ പൂക്കളം പൂത്തറ ഉണ്ടാക്കിയിട്ട് അതിൽ പൂവിട്ട് അലങ്കരിക്കും പിന്നേ തിരുവോണത്തിൻ്റെ അന്ന് തൃക്കാക്കര അപ്പനെ മണ്ണ് കൊണ്ട് മെനഞ്ഞ് മൂന്ന് പ്രതിഷ്ഠ ഉണ്ടാക്കി വയ്ക്കും അതിന് ശേഷം അതിൽ അരിമാവ് കലക്കിയിട്ട് കോലം കോലം വരയ്ക്കും അനിയ എന്നാണ് അതിന് പറയുക അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ അത് പിന്നെ ആയില്ല്യ മകം വരുമ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അത് വരുമ്പോഴാണ് അത് എടുത്ത് മാറ്റുക ആ പിന്നെ അടുത്തത്